ഞാൻ വായിച്ച ഒരു മത ഗ്രന്ഥത്തിൽ നിന്ന് ചെറുതായിട്ട് ഞാന് പാടി കേൾപ്പിക്കാം അമ്മയെന്നൊരു വാക്കു വിളിക്കുന്നതു കേട്ടു ജന്മമെന്തെടുക്കുവാൻ മക്കളേ കൊതിപ്പൂ ഞാൻ അമ്മ കൊതിപ്പൂ ഞാൻ മാതൃത്വത്തിനന്തി ഭാഷപോൽ തേനൂറുന്ന മാ മാതൃഭാഷയെ തന്നെ ജീവനിട്ടുയരുമ്പോൾ അം അമ്മ മക്കള് മമ്മിയെന്നു വിളിക്കുന്നത് കേട്ടിട്ട് മമ്മിക്ക് സഹിക്കാൻ പറ്റാണ്ട് മമ്മി മരിക്കാൻ കിടക്കുന്ന സമയത്ത് മമ്മിക്ക് അമ്മ എന്നൊരു വാക്ക് വിളിക്കുന്നത് കേള്ക്കാൻ വേണ്ടി അമ്മ കാതോർത്തിരുന്നു അമ്മക്ക് ഒന്നിനും പറ്റാൻ കഴിയുന്നില്ലെങ്കിലും മമ്മി എന്ന് വിളിച്ച് കേട്ട് കേട്ട് മടുത്തിട്ട് അമ്മ എന്ന ഉച്ചാരണം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ലാസ്റ്റ് ആ കുട്ടികളെല്ലാം കൂടി അമ്മേനെ അമ്മ എന്ന് വിളിച്ച് സന്തോഷിപ്പിച്ച് അമ്മ അമ്മ അവസാനം മരിക്കുകയും ചെയ്തു ആ അങ്ങനെയാണ് ഈ കഥ ഈ പദ്യത്തിൻറെ ഭാഗം ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളു അതാണ് ഈ അമ്മയെന്ന അമ്മയും മക്കളും ആയിട്ടുള്ള ബന്ധം